അയ്യോ ചേട്ടാ സോറി വിളിച്ചത് ഞാൻ കണ്ടില്ല ഫോണ് സൈലൻറ്റായിരുന്നു കണ്ടില്ലായിരുന്നു ഇത് ഞാൻ എയർപോർട്ടിൽനിന്ന് ഇറങ്ങിയപ്പോൾ കൂട്ടുകാർ വന്നായിരുന്നു അവരുടെകൂടെയങ്ങ് കയറി ചേട്ടനെ വിളിച്ചിട്ട് മറ്റേ ഔട്ട് ഓഫ് കവറേജ് ഏരിയയെന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഞാനങ്ങോട്ട് വിളിച്ചില്ല പിന്നെ അവരുടെകൂടെയങ്ങ് കയറിയിട്ട് ഇപ്പോഴെൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിൽക്കുകയാ നാല് ആ നാല് കിലോമീറ്റർ അടുത്തെങ്ങാണ്ടാണ് ഇല്ലടാ നാല് കിലോമീറ്റർ അടുത്താണ് അവരുടെ വീട് അങ്ങോട്ട് വന്നാൽ മതി ഞാനിപ്പം ലൊക്കേഷൻ ഈ നമ്പറിൽ വാട്സ്ആപ്പുണ്ടെങ്കിൽ ആ നമ്പറിൽ ഞാനിപ്പോൾ ലൊക്കേഷനയക്കാം ആ നമ്പറിലേക്ക് വന്നാൽ മതി സോറി ലൊക്കേഷനിലേക്ക് വന്നാൽ മതി ക്ഷമിക്കണം കേട്ടോ ഞാൻ വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെ ചെയ്തതല്ല അവന്മാർ പിള്ളേർ ഫ്രണ്ട്സല്ലേ ഫ്രണ്ട്സായതുകൊണ്ട് ഇപ്പം നമുക്ക് കയറിപ്പോയേ ഒക്കത്തുള്ളൂ അവന്മാർ വിളിച്ച് കയറ്റി ഇച്ചിരി കമ്പനി ഉണ്ടായിരുന്നു ആ കമ്പനിയൊക്കെ കഴിഞ്ഞ് ആ രീതിയിലങ്ങ് പോയതായിരുന്നു അതാണ് പറ്റിപ്പോയത് ഞാനെന്തായാലും ലൊക്കേഷനിലിപ്പം ഞാനീ ചേട്ടൻ്റെ ഈ നമ്പറിൽ വാട്സ്ആപ്പുണ്ടെങ്കിൽ ആ വാട്സാപ്പിൽ ഇപ്പം ഞാൻ അയച്ച് തരാം

ഒന്ന് വരാൻ പറ്റുമോ പറ്റുമോയെന്നല്ല എന്തായാലും ബുക്ക് ചെയ്തതല്ലേ വന്നല്ലോ ഒക്കത്തുള്ളു വരണം നമുക്ക് പോവേണ്ടത് മൂന്നര മണിക്കൂർ യാത്ര ഉണ്ട് മൂന്നരയല്ല നാലുണ്ട് മേലുകര എന്ന സ്ഥലത്ത് കോഴഞ്ചേരി പത്തനംതിട്ട കോഴഞ്ചേരി മേലുകര എന്ന സ്ഥലത്താ വീട് അങ്ങ് വരെ പോവണം അതിനിപ്പുറം എക്സ്ട്രാ ചാർജുണ്ടെങ്കിൽ ആ എക്സ്ട്രാ ചാർജ്ജും ഞാൻ തന്നേക്കാം കുഴപ്പമില്ല ഞാനിപ്പോൾ തന്നെ ലൊക്കേഷനയക്കട്ടെ ഓക്കേ